നിലവിലുള്ള ചെടികളില് അതിന്റെ പിന്നെ പരിസരങ്ങളും അതിന്റെ ചുവടുകളുമെല്ലാം കൃത്യമായ രീതിയില് വകഞ്ഞ് അതിന് ഉള്ള കൃത്യമായ നിലവിലുള്ള വളം ഇട്ട് അതിനെ ഭംഗിയായ രീതിയില് മൂടി അതിനെ ഉള്ള സാഹചര്യങ്ങള് ഉണ്ടാകുകയും കൂടാതെ ഇത് വളര്ന്ന് വരുന്ന ചെടിയില് അഴുക്ക് പ്രാണികളും പിന്നെ ഒക്കെ വരുന്ന ആ സാഹചര്യത്തിന് അതിനെ തളിക്കാനുള്ള മരുന്നുകൾ നമ്മൾ വാങ്ങി തളിച്ച് അതിനെ ഇല്ലാതാക്കുകയും ചെയ്യണം രണ്ടാമത് ഇതിന്റെ കാമ്പുകൾ വെട്ടി വൃത്തിയാക്കി നല്ല ഭംഗിയായതോട് കൂടി തന്നെ വേണം അതിനെ കൈകാര്യം ചെയ്യാന് പിന്നെ അതിനെ വ വെള്ളം ആവശ്യാനുസരണം വെള്ളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടാമതായിട്ട് സൂര്യപ്രകാശം കിട്ടണം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് മാത്രമേ ഇത് നല്ല പോലെ വളരുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്ത് വരുമ്പോള് ആണ് ചെടി കൂടുതല് പ്രയോജനം ആകുകയും ഉത്പാദനശേഷി വര്ദ്ധിപ്പിക്കുകയും പിന്നെ കൂടുതല് ഭംഗിയാക്കുകയും ചെയ്യുന്നത് ഈ കാര്യങ്ങള് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ചില മിശ്രിത വളങ്ങള് ഇട്ട് കൊടുക്കണം അതിൻ്റെ അകത്ത് പിന്നെ മരവെട്ടി പിണ്ണാക്ക് പിന്നെ ചാണകം പിന്നെ പച്ചില വളം ഇതൊല്ലാം കൂടെ കൂട്ടി ചേര്ത്ത് കുളിപ്പിച്ച് ഇതിന്റെ ചുവട്ടില് ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയ ഉത്പാദനശേഷി ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്തെ ഈ പറഞ്ഞില്ലേ പരിപാലനത്തിൽ അതിനെ എപ്പോഴും ശ്രദ്ധിക്കണം അതിനെ പുഴുവേ പ്രാണികളുടെ ശല്യത്തില് നിന്ന് രക്ഷിക്കണം അതിന് അതിന് മരുന്നുകൾ തളിച്ചു കൊണ്ടിരിക്കണം അല്ലേ മിശ്രിതങ്ങള് ഉണ്ട് അത് നമ്മൾ ഉണ്ടാക്കി തളിച്ചു കൊണ്ടിരിക്കണം ഇതാണ് നിലവിലുള്ള ചെടികളിൽ കൂടുതല് ഉത്പാദിപ്പിക്കാന് സാധിക്കുക